ഞാൻ ഈ ഇടക്ക് ഫ്ലിപ്പിന്നു ഒരു ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബില്യൺ സെയിലിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോൺ ഓർഡർ ചെയ്യുന്ന കേസ് അപ്പം അവൻ യൂസെയ്യുന്നൊരു പ്രോഡക്ട് ഐ മീൻ ഒരു നല്ലൊരു ഫോണാണ് ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണായിരുന്നു അവൻ യൂസെയ്തോണ്ടിരുന്നത് അവൻ എൻ്റെടുത്ത് പറഞ്ഞു ഇത് നല്ലതാണു ഇതിൻ്റെ ചാർജിങ് പിന്നെ അതിൻ്റെ സ്ക്രീന് അതിൻ്റെ ബാറ്ററി എല്ലാ കേസും നല്ലതായിരുന്നു അപ്പം അവൻ എൻ്റടുത്ത് പറന്നു മേടിക്കുവാണെങ്കിൽ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഇപ്പോൾ ഉള്ളതില് അത്യാവശ്യം ഞാൻ യൂസെയ്തതില് നല്ല ഫോണാന്ന് പറഞ്ഞിട്ടാ അവനെനിക്കോരു ഫോൺ പറഞ്ഞുതന്നിട്ടുണ്ടായിരുന്ന് ഈ ഇടക്ക് ബിഗ് ബില്യൺ ഡേയുടെ സമയത്തായിരുന്നു ഫോൺ ഓർഡർ ചെയ്തത് എന്ന് പറയുമ്പോൾ ഞാൻ ഫോണൊക്കെ ഓർഡർ ചെയ്തു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എൻ്റെടുത്ത് സാധനം കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പ്രൊഡക്ടിലും ഭയങ്കര ഹാപ്പി ആണ് സർവീസും എല്ലാം ഭയങ്കര ഹാപ്പിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ ഫോണ്ന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫോണാണ് ഞാൻ ഇപ്പൊ യൂസെയ്യാൻ തുടങ്ങിട്ട് രണ്ട് ആഴ്ച്ചേൻ്റടുത്തായി ഫോൺന്നു പറയുമ്പോ അടിപൊളി ഫോണാണ് ഇപ്പം ചാർജിങ് ആണെങ്കിൽ പക്കാ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും വിഡിയോൻ്റെ ക്വാളിറ്റി പിന്നെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നല്ല സെറ്റ് സാധനമായിരുന്നു എൻ്റെ ഫ്രണ്ട് സജ്ജെസ്റ്റ് ചെയ്തത് അതുകൊണ്ടു ഞാനതു മേടിച്ചത് മേടിച്ചതില് എനിക്ക് വലിയ കുഴപ്പായിട്ടൊന്നും തോന്നില്ല പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഭയങ്കര ഉപകാരമാണ് ആ ഫോണുകൊണ്ട്